ഹലോ ആ നിങ്ങളെന്താണ് ഇതുവരെ എത്താത്തത് ഞാൻ കുറെ നേരമായി കാത്തിരിക്കുന്നു എവിടെയെത്തി നിങ്ങള് എംജി റോഡിലെത്തിയോ എന്നാൽ പെട്ടന്നു തന്നെയൊന്നു വരുവോ എനക്കാറു മണിക്ക് ബസ് പോയാൽ പിന്നെ ഇന്ന് ബസ്സില്ല അതുകൊണ്ട്ത്തന്നെ പെട്ടെന്നെനിക്ക് എത്തണമവിടെ ഓക്കേ ഓക്കേ എന്നാൽ നിങ്ങളൊന്നു പെട്ടന്നു വരണം കേട്ടോ ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഒരു മണിക്കൂറായി പുറത്തിറങ്ങി നിൽക്കുന്നു ആ ഓക്കേ ഒന്നു പെട്ടന്നു തന്നെ വരണം